ആ ഞാൻ ഡാൻസ് റീലൊക്കെ കാണാറുണ്ട് പിന്നെ ഷോർട്സും കാണാറുണ്ട് പിന്നെ സോഷ്യൽ മീഡിയ ഞാൻ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കും പിന്നെ ഫേസ്ബുക്ക് ഉപയോഗിക്കും പിന്നെ സ്നാപ് ചേറ്റ് ഇതൊക്കെ തന്നെ ഉപയോഗിക്കുന്നത് പിന്നെ ഇൻസ്റ്റാഗ്രാമിലാണ് ഈ റീൽ കാണണ പിന്നെ യൂട്യുബിലും കാണും യൂട്യൂബിൽ ഷോർട്സുണ്ട് യൂട്യൂബിൽ ഷോർട്സ് കാണും പിന്നെ ഇൻസ്റ്റയിൽ റീൽസ് കാണും അതിൽ പിന്നെ ഡാൻസിൻ്റെ റീൽസ് കാണണത് ഉണ്ട് എനിക്ക് പിന്നെ കൂടുതലിഷ്ടം ക്ലാസ്സിക്കൽ ഡാൻസാണ് അപ്പോൾ ക്ലാസ്സിക്കൽ ഡാൻസ് കളിക്കണ നൃത്തകരെയൊക്കെ എനിക്കിഷ്ടമാണ് ശാസ്ത്രീയ നൃത്തം അപ്പോൾ അത് അതു കാണണത് ഇഷ്ടമാണ് പിന്നെ വേറെ ഇഷ്ടമുള്ളതേയെന്നു വെച്ചാൽ വേറെ ഡാൻസ് എനിക്കീ ബോളിവുഡ് ല് ഡാൻസ് ചെയ്യുന്നത് ഇഷ്ടമാണ് സൊനാലി സൊനാലീ ദേവരാജെന്നു പറയുന്ന ഒരു ഡാൻസറുണ്ട് എന്നൊരു നർത്തകിയുണ്ട് അവരുടെ ഡാൻസ് നല്ല രസമാണ് അവിടെ അവർ ബോളിവുഡിലൊക്കെ ഒരുപാട് സിനിമയിലൊക്കെ ഇതു ചെയ്തിട്ടുണ്ട് പിന്നെ അവരെ കോറിയോഗ്രാഫി നല്ല രസമാണ് അപ്പോൾ ഈ ഷോർട്സ് കാണുന്ന ഇ ഇ പറഞ്ഞതു പോലെ ഡാൻസിനെയാണ് പിന്നെ ഞാൻ ഇൻറ്റർനാഷണൽ റീൽസൊക്കെ കാണും വിദേശത്തുള്ള ആൾക്കാർ ചെയ്യുന്ന ഡാൻസിൻ്റെ റീലൊക്കെ കാണാറുണ്ട് ഷോർട്സ് കാണാറുണ്ട് അമേരിക്കയിലുള്ള ഹിപ് ഹോപ് നൃത്തം ഞാൻ കാണാറുണ്ട് അതു നല്ല എനിക്കിഷ്ടമാണ് പിന്നേ മൈക്കൾ ജാക്സൻ്റെ മൂൺ വാക്ക് അങ്ങനെയുള്ള ഷോട്സൊക്കെ വരാറുണ്ട് പഴയ മ്യൂസിക് വീഡിയോ ഒന്നെടുത്താൽ ഷോർട്സ് വരാറുണ്ട് അതൊക്കെ ഞാൻ കാണാറുണ്ട് എനിക്കതു ഭയങ്കര ഇഷ്ടമാണ് അത് നല്ല ഇഷ്ടമാണ് മൈക്കൾ ജാക്സൻ്റത് പിന്നെ ഹിപ് ഹോപ് നൃത്തം ബ്രേക്ക് ഡാൻസിനൊക്കെ പറയും അങ്ങനെയുള്ള സംഭവങ്ങൾ ഭയങ്കര പിന്നെ ഡപ്പാംകുത്ത് ഡാൻസൊക്കെ തമിഴിൽ കളിക്കുന്ന ടീംസൊക്കെ ഉണ്ട് ചെന്നൈയിലുള്ള ചെന്നൈ ബോയ്സ് എന്നൊക്കെ പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട് ചെന്നൈ ബോയ്സ് പിന്നെ കെലി ഗാങ്ങെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഡാൻസ് ഗ്രൂപ്പുകളുണ്ട് അവരുടെ ഡാൻസ് റീൽസൊക്കെ ഞാൻ കാണാറുണ്ട് റീൽസ് ഷോർട്സൊക്കെ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ വരുന്ന കാണാറുണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല രസമാണ് അവരെ കണ്ടുകൊണ്ടിരിക്കാൻ അവരാ നല്ല താളത്തിൽ ഇമ്പത്തിലാണവർ കളിക്കുന്നൊക്കെ അതൊക്കെ കണ്ടു കൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ് അപ്പോൾ അതെല്ലാം ഞാൻ കാണാറുണ്ട്